ആറ് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഏഴ് രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് എട്ട് രണ്ട് രണ്ടായിരത്തി പതിനാല് ഒൻപത് രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പത്ത് രണ്ട് രണ്ടായിരത്തി അഞ്ച് ഏഴ് രണ്ട് രണ്ടായിരത്തി ആറ്